ആ ചേട്ടാ നമ്മുക്ക് ഈ മൂന്നാറ് ഇടുക്കി മൂന്നാറൊക്കെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ സീസൺ ആണോ ആ നമക്കൊരു ആറു ദിവസത്തെ ട്രിപ്പാണ് ഫ്രണ്ട്സ് എല്ലാരുമായിട്ട്

നമ്മൾ ഒര് ഏഴു പേരുണ്ട് ഓക്കേ ട്രക്കിങ്ങൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമോ എങ്ങനെയാണു ചേട്ടാ അതിൻ്റെ ചാർജ് ഒക്കെ ആറുപേര് ആ ആറേഴ് ഓക്കേ അഡിഷണൽ ചാർജ് ഓക്കേ ബഡ്ജറ്റ് നമുക്ക് കുഴപ്പമില്ല അവിടെ എങ്ങനെയാണ് സ്റ്റേയൊക്കെ എങ്ങനെയാണ് സ്റ്റേ ചെയ്യാൻ അത് നിങ്ങൾതന്നെ അവിടെ സെറ്റാക്കുകയാണോ അതോ നമ്മൾ ബുക്ക് ചെയ്യണോ ഓക്കെ ഓക്കെ

അത് ഒരു ദിവസത്തെ ഇതാണല്ലെ ഓക്കേ അപ്പോൾ എങ്ങനെയാണ് സീസൺ തിരക്കുള്ള സമയമാണോ ഓക്കേ ആ ഓക്കേ ചേട്ടാ ഒരു ഡിസംബർ ആ ഓക്കേ ഡിസംബറൊരു പതിനാല് ആ ബാക്കിയെല്ലാം നിങ്ങളവിടെ സെറ്റാക്കുമല്ലോ ഓക്കേ ചേട്ടാ ശരി